ഹലോ ആ ഇത് ടീ ഹോൾസെയ്ൽ സെല്ലർ അല്ലേ എനിക്ക് നിങ്ങളുടെ ഏജൻസി എടുക്കാൻ താത്പര്യം ഉണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിക്കുന്നതാണ് നിങ്ങളുടെ ഓഫീസ് എവിടെയാണ് നമ്മൾ ഏജൻസി എടുക്കുകയാണെങ്കിൽ ആദ്യം എത്ര പണ പണം അടയ്ക്കേണ്ടി വരും

അമ്പതിനായിരത്തിന് ഒ ഒര് കിലോ പായ്ക്കറ്റിന് എന്ത് വില വരും അതെയോ നമ്മൾ അങ്ങോട്ട് വന്ന് സാധനം എടുക്കണോ അതോ നിങ്ങൾ എത്തിച്ചു തരുമോ അതേയോ ആ ഞങ്ങൾ പണം ഓൺലൈൻ ആയിട്ട് അയക്കണോ അതോ ഓഫീസില് വന്നിട്ട് അടക്കണോ ആ അടുത്ത മാസം ഞങ്ങള് വരാം അടുത്ത മാസം തൊ അടുത്ത മാസം തുടങ്ങാനാണ് ഞാനുദ്ദേശിക്കുന്നത് അതുണ്ട് ഇപ്പം ആ ശരി